ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ആ എനിക്കൊരു മൂന്നാർക്ക് പോകാനുള്ളൊരു ഫാമിലി പാക്കേജ് ആണ് അതെ ആ അതെ അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അത് ഞങ്ങൾക്ക് അടുത്ത മാസം നാലാം തീയതിയാണ് വേണ്ടത്

എങ്ങനെയാണ് അങ്ങോട്ട് പോകാനുള്ള ഒരു പാക്കേജ് നമുക്ക് എങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് ആളുണ്ടാവും ആ ഓക്കെ അവർക്കുള്ള ആ ഓക്കെ അവർക്ക് ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എത്ര ബഡ്ജറ്റ് എത്ര വരും

ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്താൽ മതി കുഴപ്പമില്ല അത്രയും നല്ലതാണ് ആ ആ ഓക്കെ ആ പിന്നെ അവിടെ ഉള്ള ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നേ ആ ഏകദേശം എത്ര വരും അത് ഒരാർക്ക് ഏഴായിരം രൂപ അല്ലേ ഓക്കെ അവിടെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഒക്കെ എതാണ് ഉള്ളത് ഓ ആ ഓ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ആ ഓക്കെ ആ ആ ഓ സമയം ഒക്കെ ഏകദേശം എത്ര ദിവസം എടുക്കും എന്നുവെച്ചാൽ അവിടെ ഒക്കെ കാണാനൊക്കെ എത്ര ഏകദേശം ദിവസം ആ

ആ അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള അങ്ങോട്ട് പോകാൻ എത്ര ദിവസം എടുക്കും ആ ഓക്കെ പിന്നെ ആ ഓക്കെ എന്നാൽ നാളെ വരാം ഓക്കെ ശരി എന്നാൽ ആ ഓക്കെ